ഞാനൊരു പെൻഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പം പ്രായമൊക്കെയായി വരികയാണല്ലോ ഇപ്പോൾ ജോലിയിൽ നിന്നാണെങ്കിൽ റിട്ടയർമെൻ്റും ആവാനായി അപ്പോൾ എന്തായാലുമൊരു നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് ചേർന്നേക്കാമെന്നു വിചാരിച്ചു അപ്പം ഇതിന് നമുക്കെന്തൊക്കെയാണ് ആവശ്യം ആധാർ കാർഡ് റേഷൻ കാർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണോ എന്തൊക്കെയാണ് ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നിങ്ങൾ പറയുന്നത് നമ്മൾ കൊണ്ടുവരാം കേട്ടോ കാരണം നമ്മുടെയൊക്കെ ജീവിതം എന്നു പറയുന്നത് എപ്പോൾ വേണമെങ്കിലും പോവാം ലൈഫിൽ പെർമനൻ്റായിട്ടൊന്നല്ലേ ഉള്ളു അത് മരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എന്നും എന്തും സംഭവിക്കാം അപ്പോൾ നമ്മൾക്കെന്തെങ്കിലും പറ്റുകയാണെങ്കിൽ വീട്ടുകാർക്ക് നമ്മളൊരു എന്തെങ്കിലും വഴിച്ചെലവിനുള്ളത് കണ്ടു വെക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ പെൻഷൻ സ്കീമിൽ കൂടാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ എനിക്കറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പം എന്തൊക്കെ വേണം ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു അത് കൊണ്ടുവന്ന് ഇതിലങ്ങ് ചേരാമായിരുന്നു പിന്നെ ഈ പെൻഷനും കൊണ്ടെന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ അതായത് നമുക്കെത്ര രൂപ കിട്ടും ദോഷങ്ങളെന്തെങ്കിലുമുണ്ടോ ഇനിയിപ്പം നമുക്കെത്ര പൈസ ആയിരിക്കും കിട്ടുക മെയിനായിട്ടിതിൻ്റെ ആനുകൂല്യങ്ങളെന്തൊക്കെയാണ് നിങ്ങളതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു തരണം എന്നാലെ നമുക്കിനി കൂടണോ വേണ്ടയോ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചപ്പോൾ കുറേ പേർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇതിൽ കൂടുന്നത് നല്ലതാണെന്നൊക്കെയാണ് പറഞ്ഞത് പെൻഷൻ സ്കീമ് നല്ലതാണ് അത് നമുക്ക് ഭാവിയിലേക്കാണെങ്കിലും നമ്മുടെ തലമുറയ്ക്കാണെങ്കിലും അതാവശ്യമായിട്ടേ വരൂള്ളൂ നമ്മൾക്കെന്തെങ്കിലുമൊന്ന് പറ്റിക്കഴിഞ്ഞാലും അപ്പം നിങ്ങളിതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് തരിക